ഞാൻ പോയിട്ടുള്ള ക്ലൈംബിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട്ടിലുള്ള ഒരു തൊണ്ണൂറാം കണ്ടി തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ ആ ജീപ്പ് പോകുന്നൊരു ക്ലൈംബിംഗ് ഭയങ്കര സാഹസികതയോടുകൂടി പോയ ജീപ്പിലെ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഞാൻ ട്രക്കിംഗ് ആയിട്ട് ക്ലൈംബിംഗ് ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല ആ ഇതിൽ ജീപ്പിൽ പോയത് ഭയങ്കര ഒരു ദി അഡ്വൻഞ്ചറസ് ജേർണി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതൊരു നല്ലൊരു ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു